നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഒരു ജനറേഷൻ മാറി വന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാന് പറ്റും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ എക്സ്ട്രീം ലെവൽ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നത് വരെ നമ്മുടെ ഒരു തലമുറ കണ്ട് വളരുകയാണ് എങ്ങനെ നോക്കിയാലും ഒരു കട്ട് ചെറിയൊരു കയ്യിലൊതുങ്ങിയൊരു ചെറിയ കട്ടപെട്ടി ഫോണ് എന്ന നിലയില് നിന്ന് കുറെ ടച്ച് പാഡും കാര്യങ്ങളുമൊക്കെയായ ഒരു ഫോണിൽ നിന്നും ഒരു ക്യാമറ എന്ന ഒരു ആശയം അതിനൊപ്പം തന്നെ കൊണ്ട് വന്ന് ക്യാമറ ഫോൺ കാര്യങ്ങള് പിന്നീട് അത് മാറി കുറച്ച് വലിയ വലിയ ഫോണുകള് കാര്യങ്ങള് അതിനുള്ളില് വീഡിയോസ് കാര്യങ്ങള് കാണാനുള്ള ഓപ്ഷന്സ് പാട്ട് കേള്ക്കാനുള്ള ഓപ്ഷന്സ് മെമ്മറി കാര്ഡ് അങ്ങനത്തൊരു സെറ്റപ്പിൽ നിന്ന് തുടങ്ങി പിന്നെ അവിടെ നിന്നും അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ടച്ച് ഫോണ് എന്ന രീതിയിലേക്കൊരു കടന്നുവരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊരു ജനറേഷന് ആണ് നമുക്ക് മുന്നില് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് നോക്കുവാണെങ്കിൽ സിമ്മ് കാര്യങ്ങള് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളൊരു റീചാര്ജ് ചെയ്തിട്ടാണ് ചെയ്യാന് പറ്റുന്നത് ഇപ്പം നമുക്കൊരു കോള് ചെയ്യാനാണെങ്കിൽ തന്നെ അതിനുള്ളിൽ തന്നെ കുറേ അധികമായ പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ കാലഘട്ടത്തില് ഇപ്പം നമുക്ക് ചെയ്യുന്ന ഒരു തുച്ഛമായ തുകയില് നമുക്ക് ഒരു ഇത്ര കോള് സമയമേ ചെയ്യാന് പറ്റത്തുള്ളായിരുന്നൊള്ളു അങ്ങനത്തൊരു കുറേ ഇത് ഇണ്ടായിരുന്നു അതുപോലെ തന്നെ നെറ്റ് കാര്യങ്ങള് ആണെങ്കിൽ തന്നെ ഒരു ചെറിയ പൈസക്ക് റീച്ചാർജ് ചെയ്ത്ക്കഴിഞ്ഞ ഒരു മാസം ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു രൂപയുടെ ചെറിയ ഒരു എം ബി കാര്യങ്ങള് ഒക്കെ ആയിട്ട് ഇപ്പഴത്തെ ഒരു തലമുറയിലേക്ക് നോക്കുമ്പോള് എന്ന് പറയുമ്പോള് എല്ലാം അണ്ലിമിറ്റഡ് എന്ന ഓപ്ഷനിലേക്ക് വരെ എത്തി നില്ക്കുന്ന ഒരവസ്ഥയാണ് അതും പണ്ടുകാലങ്ങളില് നോക്കുകയാണെങ്കില് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ദിവസങ്ങളും മണിക്കൂറുകളും വേണ്ടിയിരുന്ന കാര്യങ്ങള് ഇപ്പം നമുക്ക് ജസ്റ്റ് മിനിട്ടുകള് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാനും അത്രയും സ്പീഡ് കാര്യങ്ങള് യൂസ് ഇതാക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം ഓരോ സിമ്മുകളുടെ കടന്നു വരവ് ഓരോ പുതിയ പുതിയ ടെക്നോളജീന്റെ കടന്നു വരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് ഇങ്ങോട്ട് അത് പുതിയ പുതിയ പുതിയ കാര്യങ്ങളിലേക്കും ടെക്നോജികളിലേക്കും നമുക്ക് കുറെ സഹായങ്ങളും കാര്യങ്ങളും ആയിട്ട് വരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കി പണ്ട് കാലങ്ങളില് ഒരു ചെറിയ ഫോണ് എന്ന രീതിയില് നിന്ന് നോക്കിട്ടു മാറി ഇപ്പം വന്ന് കഴിയുമ്പോൾ അത്രയും ഇത് ഒരു ഒരു വികസനം തന്നെയാണ് വന്നിരിക്കുന്നത് അത്രയും ടെക്നോളജിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് അത് ഓരോന്നും നമ്മളെ സഹായികുന്നുണ്ട് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാല് കോള് ചെയ്യാനാണേലും വിഡിയോ കോള് ചെയ്യാനാണെങ്കിലും ഉള്ള ഓപ്ഷന്സ് കാര്യങ്ങള് സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങള്ക്ക് വേണ്ടിട്ടും ഓരോ കാര്യങ്ങള്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മണി ട്രാൻസാക്ഷൻസ് കാര്യങ്ങള്ക്ക് ആണെങ്കിലും എല്ലാം ഡിജിറ്റല് ആയിട്ടു മാറി കൊണ്ടിരിക്കുകയാണ് എല്ലാം ഇ ട്രാന്സാക്ഷന് വഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങളും അതിന്റേതായ വ്യത്യസ്തമായ രീതികളിലേക്കും ഓരോ ഇതിലേക്കും അപ്ഡേറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോണുകളുടേതു പോലെ സിമ്മുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫിസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മുടെ പൈസകളും കാര്യങ്ങളും സേവ് ചെയ്യാനും കാര്യങ്ങള്ക്കൊക്കെ അത് സഹായിക്കുന്നുണ്ട് കാരണം പണ്ടുകാലങ്ങളില് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷന്സ് കാര്യങ്ങള് ഉണ്ടായിരുന്നു അതൊക്കെ മാറികകൊണ്ടിരിക്കുകയാണ്